ഹലോ മാഹിന്ദ്രേൻ്റെ ഷോറൂമായിരുന്നു

ബൊലോറോനെ കുറിച്ചാണ് ബൊലേറോ ഇപ്പം നമുക്ക് മൂന്ന് വേരിയൻറ്റാണ് ഉള്ളത് മൂന്ന് വേരിയൻറ്റെന്ന് പറയുമ്പോൾ നമുക്ക് അതായത് ലോ ഓപ്ഷൻന്ന് പറഞ്ഞ് കഴിഞ്ഞാല് നമുക്ക് വണ്ടീനെ കുറിച്ച് എന്തെങ്കിലും അറിയുമോ ഇല്ലല്ലേ എന്നാൽ ഞാൻ പറഞ്ഞുതരാം വണ്ടി അതായത് നമുക്ക് ബൊലേറോയിൽ വരുന്നത് മൂന്ന് ഓപ്ഷൻസാണ് വരിക അതായത് ലോ ഓപ്ഷൻ മിഡിൽ ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ അപ്പം അതില് ലോ ഓപ്ഷനില് നമുക്ക് പവർ വിൻഡോയും കാര്യങ്ങളൊന്നും ഉണ്ടാകില്ല നമുക്ക് മാനുവലായിട്ട് തിരിക്കണം അതായതു നമ്മുടെ പവർ വിൻഡോന്നു പറഞ്ഞുകഴിഞ്ഞാല് നമ്മുടെ സൈഡ് ഗ്ലാസില്ലേ നമ്മള് ഇരിക്കണേൻറ്റെ സൈഡ് ഗ്ലാസ് അത് ഓട്ടോമാറ്റിക്കായിട്ട് തുറക്കില്ല നമ്മള് കൈ കൊണ്ടു തന്നെ തിരിച്ചിട്ടു നാ സാധാ നോർമല് ഈ ആൾട്ടോലോക്കെ വരുന്ന ഫീചേഴ്സ് മാത്രാണ് അതിനുള്ളത് അതിന് മിഡിൽ ആകുമ്പോൾ നമുക്ക് ഫ്രണ്ട് രണ്ടു ഡോറ് പവർ വിൻഡോ ഉണ്ടാകും അതായത് നമുക്ക് സ്വിച്ച് കൊണ്ട് തന്നെ ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാല് സൈഡിലെ വിൻഡോയും കാര്യങ്ങളൊക്കേ മേലോട്ട് പൊങ്ങും താഴും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പിന്നെ ഫുൾ ഓപ്ഷനിലാണെങ്കിൽ നമുക്ക് നാല് ഡോറും പവർ വിൻഡോയുമായിരിക്കും ബാക്ക് വൈപ്പറും വരും ആ പിന്നേ ലോ ഓപ്ഷനില് വരുന്നതില് സ്റ്റീരിയോയും കാര്യങ്ങളൊന്നും ഉണ്ടാകില്ല സ്റ്റീരിയോ ഒക്ക നിങ്ങള് അഡീഷനലി ഫിറ്റ് ചെയ്യണം ആ എസി ഉണ്ടാകും പവർ സ്റ്റിയറിങ്ങും ഉണ്ടാകും ആ രണ്ട് കാര്യങ്ങള് ലോ ഓപ്ഷനിലും വരുന്നതാണ് പിന്നെ മിഡിൽ ഓപ്ഷനില് നമുക്ക് സ്റ്റീരിയോയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പവർ സ്റ്റീയറിങ് എസി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ഇത് സെവൻ സീറ്റർ ആണ് അതാണ് അതിൻറ്റെ ഒരു ഗുണം ഇതിനും റേറ്റ് കുറവായിട്ടുള് എസ്യുവി മോഡല് സെവൻ സിറ്ററാണ് ഈ വണ്ടി ഇപ്പം നിങ്ങൾക്ക് ഫോർ ഇൻടു ഫോർ വേണോ അതോ ടു വീല് വേണോ ടു വീൽന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബാക്കിലെ രണ്ടു വീല് മാത്രമേ കറങ്ങുള്ളൂ എവിടേങ്കിലും ഇപ്പോൾ പോയിട്ട് ചെളിയിലൊക്കെ കുടുങ്ങുവാണെങ്കില് ഫ്രണ്ട് ബാക്കിലെ രണ്ടു വീല് മാത്രമേ കറങ്ങുള്ളൂ ഫോർ ഇൻറ്റു ഫോർ ആണെങ്കില് നമുക്ക് നാല് വീലും ഒരേപോലെ കറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ചെളീലൊക്കെ കുടുങ്ങുകയാണെങ്കില് കേറി പോവും അത് നമ്മള് അഡീഷണല് ഫിറ്റ് ചെയ്യണേണ് അതിപ്പോൾ നിങ്ങള് വണ്ടി ബുക്ക് ചെയ്യുവാണെങ്കിൽ മാത്രം നമ്മള് നിങ്ങക്ക് വേണമെങ്കിൽ മാത്രം നമ്മള് ചെയ്യുന്നതാണ് അതുംകൂടെ ആകുമ്പോൾ പതിനഞ്ചേ പോയിൻറ്റ് സെവൻ ഫൈവ് ലാക്ക് വരും ആ ഇപ്പോൾ അടവിനാണോ ഇടുന്നത് എങ്ങനെയാ മാസടവുണ്ട് മാസമെന്ന് പറഞ്ഞ് കഴിഞ്ഞാല് നമുക്കിപ്പോൾ എച്ച്ഡിഎഫ്സിൻറ്റെ ചെയുന്നുണ്ട് ആക്സിസ് ബാങ്കിൻറ്റെ ചെയ്യു ന്നുണ്ട് പിന്നെ നിങ്ങക്കേതെങ്കിലും ബാങ്കീന്ന് കിട്ടുമോ ഇപ്പോൾ ചോളമണ്ഡലം അങ്ങനത്തെ ബാങ്കുകൾ ഉണ്ടാകൂലെ ആ ബാങ്കീന്നൊക്കെ നിങ്ങക്ക് ലോണ് കിട്ടുവാണെങ്കിൽ നിങ്ങള് തന്നെ റെഡിയാക്കുവാണെങ്കില് കുഴപ്പമില്ല നമ്മളിവിടെ വന്നു കഴിഞ്ഞാല് നമുക്ക് റെഡിയാക്കിത്തരാം എങ്ങനെയാണ് വേണ്ടെന്നു വെച്ചു കഴിഞ്ഞാല് മാഡം തീരുമാനിച്ചാൽ മതി ആ ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചു കഴിഞ്ഞാല് ഇപ്പം പല കളറ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുമല്ലൊ അപ്പൊൾ കുടുതലും വൈറ്റ് ആണ് ചിലവാകുന്നത് മാഡത്തിന്ന് ഏത് കളറാണോ വേണ്ടത് അത് നമുക്ക് റെഡിയാക്കിത്തരാം ഇവിടെ വന്നു നോക്കിയാൽമതി മാഡം നാളെ പോന്നോളു എന്നാല് ആ ഷോറൂമിലേക്ക് വന്നാൽ മതി ഇവിടെ ടൗണിൽ തന്നെയാട്ടോ അപ്പോൾ ഞാൻ ലൊക്കേഷൻ വാട്സ്ആപ് ചെയ്തേക്കാം ഓക്കേ എന്നാല്